നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പട്ടികപെടുത്താൻ കഴിയുന്ന ഒരു ആപ്പാണ് എന്തുവാ കലണ്ടർ കലണ്ടർ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങളോ നമുക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും കല്യാണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി തന്നെ കലണ്ടറിൽ മാർക്ക് ചെയ്യുകയും ആ അന്നേ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നൊരു

കാര്യങ്ങൾ പട്ടികപ്പെടുത്താൻ കഴിയും അതുപോലെത്തന്നെ ഏതെങ്കിലും ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേഗം ചെന്ന് കലണ്ടർ എടുത്ത് വീട്ടിലെ കലണ്ടർ എടുത്ത് നോക്കുന്നതിനെക്കാളുപരിയാണ് സാങ്കേതികവിദ്യയിലുള്ള കലണ്ടർ എടുത്ത് എന്നാണ് അവധി എന്നാണ് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് ഏത് ദിവസമാണ് അതൊക്കെ നമുക്ക് വേഗം തന്നെ കണ്ടെത്താൻ സാധിക്കും അതുപോലെത്തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേറൊന്നാണ് നോട്ട്പാഡ് നോട്ട്പാഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ല ആണെങ്കിലും ഇപ്പം ഓൺലൈൻ അ സാങ്കേതികവിദ്യ വരുന്നു മെച്ചപ്പെടുന്നനുസരിച്ച് ബുക്കുകളിലുള്ള എഴുത്ത് കുറിപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പം ചെയ്യാൻ സാധിക്കുന്നില്ല അതിന് ഉപരിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും ഫോണിൽ തന്നെ നോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും ആ നോട്ട് എന്ന് പറയുമ്പത്തേക്ക് ഇപ്പം നമ്മൾ ഇവിടെയിരുന്ന് സെമിനാർ കൂടാൻ ബുക്കില്ല അപ്പം നമുക്ക് നോട്ട് ചെയ്യാം പിന്നെ വിലാസങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരിയൊത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും സാങ്കേതികവിദ്യ വരുന്നതുപോലും നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ നേരത്തെ ബുക്ക് ഉപയോഗിച്ച് നമ്മൾ എഴുതുകയും പിന്നെ ടെക്സ്റ്റ്ബുക്കിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്ന കാര്യങ്ങളല്ലാം ഇപ്പോൾ ഓൺലൈൻ രൂപരമായി നമുക്ക് പി പി ടി പി ഡി എഫ് എന്നീ ഫൈലുകൾ ആയിരിക്കും നമുക്ക് ഇപ്പം കൂടുതലായി ലഭിക്കുന്നത് ഇവിടുത്തെ കാര്യം ഇപ്പം ഈ കോളേജിലെ കാര്യം പറയുകയായിരുന്നലും നമുക്ക് പി പി ടി പി പി ടിയാണ് പിന്നെ ടെക്സ്റ്റ്ബുക്കിനേക്കാളും കൂടുതൽ ലഭിക്കുന്നത് പി പി ടികൾ പി ഡി എഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം തന്നെ ഇപ്പം നമുക്ക് വില എന്തങ്കിലും

അതുപോലെത്തന്നെ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീ വേഗം ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വഴി നമ്മളറിഞ്ഞ് വേഗംതന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെത്തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കും നമ്മളറിയാതെ പോകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കറിയാം ഇപ്പം എന്തോ കറണ്ടില്ല അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണെങ്കിലും ഭൂചലനം അങ്ങനൊക്കെ വരുന്നേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മുന്നറിയിപ്പായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഈ ഇപ്പം നമ്മൾ വേറെ അടുത്തുകൂടെ പോകുമ്പോൾ ഏതെങ്കിലും ട്രാവല് ചെയ്യാണ് അപ്പോൾ ട്രാവല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടി വി എപ്പളും ഇല്ല പിന്നെ വിവരങ്ങളൊന്നും ആശയവിനിമയം ഒന്നും പെട്ടെന്ന് അറിയാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വാർത്താകുറിപ്പുകൾ നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള സാങ്കേതികവിദ്യ നമുക്കുണ്ട് ഇപ്പം കൂടുതലും തന്നെ പത്രത്തിന് പകരം ഇപ്പം ഡൈലി ഹൻണ്ട് എന്നൊക്കെ പറയുന്ന ആപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലും കൂടുതലും വാർത്തകൾ അറിയുന്നത് പത്രം വായിക്കാൻ ഉള്ള ആൾക്കാരുടെ ഒരു ഇത് കുറഞ്ഞു കുറഞ്ഞു അങ്ങനെ വായനാശീലം കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഓൺലൈൻ രീതിയിലാണ് എല്ലാവരും തന്നെ വായന വായനാശീലം ഈ വായനാശീലം വായനാശീലം കൂടുതലും മുതിർന്നവരിലൊക്കെയായിയിരുന്നു ഇപ്പം അവർ തന്നെ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഫോണിൽ വരുന്ന വാർത്തകൾ വായിക്കുന്നു പത്രം വായിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഓരോ ഓരോരുത്തരും ഓരോ സൈസ് ഓരോ കാര്യങ്ങളറിയാൻ വേറെ ആപ്ലിക്കേഷനുകൾ ആപ്പുകൾ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ നോട്ട് അതിൽ ഒന്നാമത് നോട്ട് വരുന്നു കലണ്ടർ വരുന്നു ഫേസ്ബുക്ക് വരുന്നു ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പത്തേക്ക് അതിനകത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അറിയാം ഈ വിളിച്ച് പറയുന്നതിനെക്കാളും വേഗം നമുക്ക് ഒരു കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് കിട്ടി ഷെയർ ചെയ്ത് കഴിയുമ്പത്തേക്ക് എല്ലാവരും തന്നെ അറിയുന്നുണ്ട് അതുകൊണ്ട്തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആയി വരുന്നുണ്ട് ഈ കലണ്ടറാണ് നമുക്കിപ്പോൾ ഏറ്റവും കടുതൽ ഇതാണ് അതുപോലെ തന്നെ നോട്ട് പി പി റ്റി റീഡറ് അതുപോലത്തെയൊക്കെ ആപ്പുകൾ നമുക്ക് ഒട്ടേറെ ഒട്ടേറെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഇത് സാങ്കേതിക വിദ്യ വളരുന്നത് തോറും എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ വിനിമയങ്ങളും നമുക്ക് ഓൺലൈൻ വഴിയാണ് കിട്ടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സാങ്കേതികവിദ്യ എല്ലാ ദിവസവും സഹായിക്കുന്നുണ്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് ഓരോ വ്യക്തി ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ